ഹലോ അതെ ഹലോ എനിക്ക് കുറച്ച് പച്ചക്കറി വേണം മോളായിട്ട പിന്നെ മുന്നൂറ് വെണ്ടക്ക പച്ചമുളകും കാന്താരിമുളകും എല്ലാം വേണം പിന്നെ വേറെ എന്താ ഉള്ളത് പച്ചക്കറി ആ അതോ ആ എനിക്ക് ചേമ്പ് വഴുതന തക്കാളി ഉരുളക്കിഴങ്ങ് സവാള ഉണ്ടോ എത്രയാണ് ഇതിനൊക്കെ വില അല്ല കല്യാണം കല്യാണ ആവശ്യത്തിനാണ് ആണോ വേണോ ആ എത്ര ഉണ്ടാകും ഡിസ്കൗണ്ട് എന്നാൽ എല്ലാം ഞാൻ എന്നാൽ പക്ക് ചെയ്യുമോ ഞാൻ വരുമ്പോഴേക്ക് എന്റെ വീട് മാനന്തവാടിയാണ് അല്ലേ ചേരൂല്ലേ എന്നാൽ എത്തിക്കാൻ പറ്റുമോ സ ആ ഇല്ല അരിയും സാധനം ഒക്കെ ഉണ്ടാകുമോ ഇവിടെ പച്ചക്കറി പീടികയിൽ എന്നാൽ ഒരു ചാക്ക് അരി മട്ട മതി പിന്നെ പത്താം തീയതിയിലേക്ക് അതെ ഒം ഒൻപതിന് ആ ഓ ഒൻപതിന് അന്ന് എത്തിയാൽ മതി